പ്രാദേശിക പ്രാദേശിക സ്കൂളുകൾ ഇപ്പോൾ നമുക്ക് സ്കൂളുകൾ വരുന്നത് ഗവൺമെന്റിൻ്റെ അണ്ടറിലും പ്രൈവറ്റിൻ്റെ അണ്ടറിലും സ്കൂളുകൾ വരുന്നുണ്ട് ഗവൺമെന്റിൻ്റെ അണ്ടറിലാകുമ്പോൾ നമുക്ക് ടെൻത്ത് വരെ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നമുക്ക് ഫീ ആ ഫിസൊന്നുമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും പക്ഷേ എന്നാലും ടെക്നോളജിക്കലി ഗവൺമെൻറ് സ്കൂൾ വളരെ പിൻ വളരെയധികം മുന്നോട്ടല്ല എന്നാൽ പ്രൈവറ്റ് സ്കൂൾ ആകുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് അതായത് സ്വിമ്മിങ് അങ്ങനെ എക്സ്ട്രാ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും പക്ഷേ ഗവൺമെന്റിലാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇംപോർട്ടൻസാണ് മലയാളം ആ ഒരു നമുക്ക് ലാംഗ്വേജ് കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് അതായത് പ്രൈവറ്റ് മീഡിയം പ്രൈവറ്റ് സ്കൂളുകളെയാണ് നമ്മൾ ഒന്നുകൂടി പ്രിഫർ ചെയ്യുക മലയാളം മീഡിയം ആകുമ്പോൾ നമുക്ക് ഗവൺമെന്റ് എന്നാലും ഗവൺമെന്റിൻ്റെ അണ്ടറിലും ഇംഗ്ലീഷ് മീഡിയം വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകൾക്കാണ് ആക്ടിവിറ്റീസ് ആയാലും കാര്യം നമ്മളിപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ചേർക്കാൻ പോകുമ്പോൾ നമുക്ക് സർട്ടിഫികറ്റായിട്ട് ജനന സർട്ടിഫിക്കറ്റ് വേണം ആധാർ കാർഡ് അതുപോലെത്തന്നെ കാസ്റ്റ് അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്